ഞാൻ ഒരു ഹിന്ദു മത വിശ്വാസിയായത് കൊണ്ട് തന്നെ എൻ്റെ സംസ്കാരം ഹിന്ദുമത സംസ്കാരത്തിൽ തന്നെ ആ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് മിക്കവരും രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് സാധിക്കുന്നവരൊക്കെ അമ്പലത്തിൽ പോയിട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് ഒരു സംസ്ക്കാരത്തിൻ്റെ ഭാഗം മാത്രമല്ല അതൊരു ദിനചര്യയും കൂടിയാണ് അപ്പം അതുവഴി നമുക്ക് വളരെ ഉന്മേഷവും ഒരു മാനസികവുമായിട്ടുള്ള ഒരു മാനസികവുമായിട്ടുള്ള മാനസികവും ശാരീരികവും ആരോഗ്യവുമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പം നമ്മൾ ദിവസം ചെയ്യുന്നത് വഴി നമുക്കത് വഴി വളരേയധികം ഉന്മേഷമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കുളിക്കാതെ ങേ ഇരിക്കുവാണെന്ന് വച്ചോ അപ്പം തന്നെ നമുക്ക് ഉറക്കം വന്ന് ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ നമ്മളാകപ്പാടെ ബുദ്ധിമുട്ടി രോഗം വന്ന ഒരവസ്ഥ പോലെയായിരിക്കും പക്ഷേ നമ്മുടെ ഒരു നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാലറിയാം മിക്കവരും ഇപ്പം ഒരു കളിയാക്കുന്ന പോലെ പറയുന്നതല്ല എല്ലാവരും രാവിലെ കുളിച്ച് നല്ല ഇതായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉന്മേഷവും നമുക്ക് സമാധാനൊക്കെയാണ് ലഭിക്കുന്നത് അപ്പം അതുവഴി നമുക്ക് കൂടുതൽ ജോലി ചെയ്യാനുള്ള ഊർജ്ജം ഊർജ്ജം കൂടെ നമുക്ക് ലഭിക്കുകയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു അപ്പം അതുവഴി നമുക്ക് കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവുകയും അങ്ങനെ നമ്മൾ വിജയത്തിലെത്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു ഈ രീതികൾ